പാലക്കാട് എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ പ്രകൃതി ഭംഗി ആണ് ആദ്യം നമുക്ക് ഓർമ്മ വരുക പാടങ്ങളും ചെറിയ ചെറിയ ഗ്രാമങ്ങളും പുഴകളും മലകളും മരങ്ങളും എല്ലാമാണ് നമുക്ക് ആദ്യം ഓർമ്മ വരുക ഇവിടെ ചെറിയ ചെറിയ ഗ്രാമങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എല്ലാരും വളരെ ലളിതമായ ജീവിതമാണ് നയിച്ചു കൊണ്ടു പോകുന്നത് അതുപോലെ തന്നെ ഇവിടെ നിറയെ സ്ഥലങ്ങൾ നമുക്ക് കാണാനുണ്ട് ചരിത്രപരമായുള്ള സ്ഥലങ്ങളും അതേപോലെ തന്നെ പ്രകൃതി ഭംഗി നിറഞ്ഞു നിൽക്കുന്ന സ്ഥലങ്ങളും നമുക്ക് ഇവിടെ നിറയെ കാണാൻ സാധിക്കും അതുപോലെ തന്നെ പാലക്കാടിന്റെ രുചികരമായ ഭക്ഷണങ്ങളും അതേപോലെ തന്നെ ജീവിത ശൈലിയുമ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് വ്യത്യാസമായ ജീവിതസ്തൈ ശൈലിയുമാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഏറ്റവും പ്രസിദ്ധമായ കോട്ട ഉള്ളത് പാലക്കാട് ആണ് ചരിത്ത അതിന് പലരെ വളരെ നല്ല ചരിത്രം ഉണ്ട് അതേപോലെ തന്നെയാണ് വരിക്കശ്ശേരി മന ആ അതും വളരെ പ്രസിദ്ധമാണ് പല ചിത്രങ്ങളിലും ആ വനിക്കശ്ശേരി മന കാണിച്ചിട്ടുണ്ട് പല ആൾക്കാരും അവിടെ വന്ന് ഷൂട്ടിംഗ് നടത്താറുണ്ട് പണ്ട് കാലത്ത് പണി പണ്ട് കാലത്തെ രീതിയിൽ വളരെ മനോഹരമായി പണിഞ്ഞതാണ് ആ മന അവിടെ കാണാൻ തന്നെ വളരെ ഭംഗിയാണ് പണ്ടു കാലത്ത് വസ്ത്രങ്ങളും ആയുധങ്ങളും അതേപോലെ തന്നെ പണ്ടു കാലത്ത് തന്നെ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളും നമുക്കവിടെ കാണാൻ സാധിക്കും വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് അതുപോലെ തന്നെ കോട്ടയും വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് പണ്ട് കാലത്തെ ആൾക്കാരെങ്ങനെ ആണ് അത് പണിഞ്ഞു വെച്ചിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും പല പല രീതീലുള്ള ചരിത്രമായുള്ള കാര്യങ്ങൾ നമുക്ക് അതിൽ നിന്ന് പഠിക്കാനും സാധിക്കും